മറ്റു പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളുകളെക്കുറിച്ച് വളരെ നല്ലഭിപ്രായമാണുള്ളത് നല്ല അധ്യാപകരും പ്രിന്സിപ്പളും ആണ് ഇവിടെ ഉള്ളത് മോശം അഭിപ്രായം എന്നു പറയുന്നത് കുട്ടികള്ക്ക് കുറച്ചുംകൂടി നമുക്ക് ആക്റ്റിവിറ്റികള് അല്ലെങ്കില് കായികപരമായ കഴിവുകള് ഉള്ള കുട്ടികളെ ശ്രദ്ധിക്കാനും അവര്ക്ക് വേണ്ട ട്രയിനിങ്ങുകള് കൊടുക്കുവാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അതിൻ്റെതായ ഒരു കുറവുമാത്രമാണ് ഉള്ളത്